ഹലോ ആ ഇപ്പോൾ ആ കേൾക്കുന്നുണ്ട് ഇപ്പോൾ മോഡ് പുതിയ മോഡൽ ഫോൺ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ വിളിച്ചത് ആണല്ലേ ഇപ്പം എങ്ങനെയാണ് അപ്പോൾ ഏതൊക്കെ മോഡൽ ആണ് ഉള്ളത് സെറ്റ്

ആ ആ പിന്നെ

ആ ആ ആ ഡെലിവറി ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ആ ഈ ഓഫറിൻ്റെ ഒക്കെ വരുമ്പം സെറ്റ് വരുമ്പം റാമും അതുപോലത്തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ എങ്ങനെയാണ് എത്രയിനാണ് ഏ ഓപ്പോ ഒക്കെ ആണെങ്കിൽ ആണ് ആ ആ ആ ആ ആ ഞങ്ങൾ ഒരു ഇരുപത് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് ആ ആ അപ്പം അതിനൊക്കെ അങ്ങനെ ആ ഇതിൽ കിട്ടുമായിരിക്കും അല്ലേ ആണല്ലേ ക്യാമറയോ നല്ല ക്യാമറ ആയിരിക്കും അല്ലേ

ആ ആ ആ ആ നമ്മൾ ഇ എം ഐ ആവുമ്പം ഫസ്റ്റ് മേടിക്കുന്നത് എത്രയാണ് ഇപ്പം അവിടെ മേടിക്കുന്നത് അത് ആറ് മാസം കൊണ്ട് അടച്ച് തീർക്കണം അപ്പോൾ ഇപ്പം നമ്മൾ അവിടെത്തന്നെ ഇറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ മെയിൽ അയച്ചി ഓക്കെ ഓക്കെ ആ അങ്ങനെ ആണെങ്കിൽ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്യാം പിന്നെ അഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ വാട്ട്സ്ആപ്പ് ചെയ്തുതരാം ക്യാഷ് ഗൂഗിൾ പേ അയച്ചാൽ പോരേ അല്ലേ ആ ഓക്കെ ഓക്കെ